അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എടുക്കുവാണെങ്കില് നമുക്കിവിടെ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കയാണ് ഉള്ളത് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്നാണ് കൂടുതലായിട്ടും നല്ല രീതിയില് പഠിച്ച് ഉയർന്ന ഒരു നിലവാരത്തില് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിലാണ് കൂടുതലായിട്ടും ആൾക്കാർക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം കാരണമെന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് നല്ല രീതിയില് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ജനതയാണ് കൂടുതലായിട്ടും മലയാളികളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ല രീതിയില് ഇപ്പം മലയാളമാണെങ്കിലും നല്ല രീതിയില് പ്രയോഗിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പിന്നേ ഇംഗ്ലീഷ് അതായത് ഹിന്ദി നമുക്ക് ഏത് ഭാഷയും നമുക്ക് പെട്ടന്ന് വഴങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കേ മലയാളികൾക്ക് പെട്ടെന്ന് വരും നമ്മളൊരു സംസ്കാരത്തെ മാത്രല്ല നമ്മള് നമ്മുടെ മലയാളി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ എല്ലാ നാട്ടിലും ജോലിയെടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഗൾഫിലാണെങ്കിലും കാനഡയില് ജർമനിയില് ഇപ്പോൾ നമ്മളെന്തിന് പറയുന്നു നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനായിട്ടുള്ള കർണാടകയില് വരെ മലയാളികള് ഉണ്ടാകും കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് മലയാളി എല്ലായിടത്തും അവരുടേതായിട്ടൊരു ഒരു മുദ്രയും കാര്യങ്ങളൊക്കേ കാഴ്ച വെക്കുന്നുണ്ട് അവര് നമ്മളൊരു സാംസ്കാരിക കാര്യങ്ങളൊക്കേ അവിടെ നമുക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം